ഹലോ ആ ആ ഓക്കേ ഓക്കേ ആന്നെ ഇത് ആ ഓക്കേ ഓക്കേ ആ ഡേറ്റ് എന്നത്തേക്കായിരുന്നു വേണ്ടത് ഓ രണ്ടുദിവസം എടുക്കും ഞങ്ങൾക്കിപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ വർക്ക് ഒക്കെ ഒരുപാട് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് തുണികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം സാരിയുടെയൊക്കെ ആണെങ്കിലും കുറേയധികം സാരി ബ്ലൗസ് ഒക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ആ അത് കാരണമാണ് നിങ്ങൾക്ക് എന്നായിരുന്നു പരിപാടി ആ ഓക്കേ ഓക്കേ ആ എന്നാൽപ്പിന്നെ പരിപാടിയുടെ രണ്ട് ദിവസം മുമ്പായിട്ട് ഞങ്ങളത് റെഡിയാക്കി തന്നേക്കാം ആ ആ ഓക്കേ അതാകുമ്പോൾ ഓണത്തിന് വേണ്ടിയല്ലേ അപ്പം ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്ക് നമുക്ക് ചെയ്തു വയ്ക്കാം എന്തെങ്കിലും പെയിൻറ്റ് വർക്ക് ആയിട്ടോ ആ ഉണ്ട് ഉണ്ട് ഞങ്ങൾ ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ ഫെസ്റ്റിവൽസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിഷയമാക്കിയാണ് കൂടുതലും വസ്ത്രങ്ങളൊക്കെ ഉള്ളത് പെയിൻറിംഗ് അതുകൊണ്ട് ഇപ്പം ഓണത്തിന് ഓണത്തിന് അതനുസരിച്ച് ആണ് ഒരുപാട് ഉണ്ട് ഞങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ട് പിന്നെ പോരാഞ്ഞിട്ട് ഒത്തിരി ഞങ്ങൾക്ക് ജോലിക്കാർ ചെയ്യാനില്ല ആ കുറച്ചേയുള്ളു എന്നാലും ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ആ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ